ഞങ്ങൾക്ക് പ പട്ടണത്തിലേക്ക് പോകാൻ അര മണിക്കൂറാകും ഞങ്ങൾക്ക് ബസ് സൗകര്യവും ബസ് സൗകര്യം ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറ് നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അതും ചില സമയത്ത് ബസ്സുകളെ ഉണ്ടാകാറില്ല ചില സമയത്ത് അവര് നിർത്ത് നിർത്തുവൊക്കെ ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിടുന്നത് അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകണം പറയണമെങ്കിൽ നമ്മള് ഓട്ടോ വിളിച്ച് പോകണ്ട അവസ്ഥയാണ് വരാറ് ഓട്ടോയ്ക്ക് തന്നെ നല്ല പൈസയാകും ഞങ്ങളുടെ ഇവിടുന്നു ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും വരും ബസ്സിന് ബസ്സിന് പോകാമെന്ന് വെച്ചാൽ ബസ്സ് ഉണ്ടാകില്ല അപ്പോൾ നമ്മള് എന്തായാലും ഓട്ടോയ്ക്ക് തന്നെ പോകണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പ്രധാന അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് ബസ്സിൻ്റെ തന്നെയാണ് പട്ടണത്തിലേക്ക് പോകേണ്ടത് ഞങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഞങ്ങൾക്ക് ആ മെയിൻ ടൗണിലേക്ക് തന്നെയാണ് പോകേണ്ടത് ഞങ്ങളുടെ അടുത്താകെ പല ചരക്ക് കട മാത്രമെ ഉള്ളൂ വേറെന്തിനും ഹോസ്പിറ്റലാണെങ്കിലും എന്ത് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും എന്ത് ഇതിനാണെങ്കിലും ഞങ്ങൾക്ക് പട്ടണത്തിൽ തന്നേ പോകണ്ട അവസ്ഥയാണ് ഒരു ഒരു അഞ്ച് മിനിറ്റ് തെറ്റിയാൽ ബസ്സ് പോയാൽ പിന്നേ നമ്മള് ഒര് മണിക്കൂറോളം നിൽക്കണ്ട അവസ്ഥയാണ് അതുകഴിഞ്ഞ് നൈറ്റ് ഞങ്ങളിവിടുന്ന് ഇപ്പോൾ അവിടുന്നു ഇങ്ങോട്ട് വരുവാണെങ്കിൽ ആറര കഴിഞ്ഞാൽ പിന്നേ ഞങ്ങൾക്കവിടുന്ന് ബസ്സില്ല പിന്നേ നമ്മള് പിന്നെ ഏഴുമണിക്ക് വീട്ടിൽ കൊണ്ട് വിടുകയാണ് ചെയ്യുക പിന്നേ ബസ്സ് നമ്മള് വേ വരാനേ പറ്റില്ല ബസ്സേ ഇല്ല പിന്നവര് ബസ്സ് റൂട്ട് നിർത്തിയിരിക്കുകയാണ് ആ അതിലേക്ക് ആ ഞങ്ങളുടെ റൂട്ടിലേക്ക് പിന്നേ നമ്മള് ഓട്ടോ തന്നേ പിടിച്ച് വരണ്ട അവസ്ഥയാണ് ഭയങ്കര വലിയ ഒരു അടിസ്ഥാന സൗകര്യ ഇല്ലായ്മ പറയുന്നത് ബ ബസ്സ് തന്നെയാണ് വണ്ടി ഇല്ലായ്മ തന്നെയാണ് ഗതാഗത സൗകര്യം ഒട്ടും തന്നേ ഇല്ലാത്തൊരു ഏരിയയാണ് ഞങ്ങളുടെ അത് കൊറോണക്ക് മുൻപായിരുന്നു നല്ലൊരു ബസ്സ് സൗകര്യമായിരുന്നു അര മണിക്കൂറ് അര മണിക്കൂറ് ഇതില് ബസ്സുകള് വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നേ പിന്നേ ഇപ്പഴാണ് ആ കൊറോണ കഴിഞ്ഞ ശേഷമാണ് രണ്ട് മൂന്ന് ബസ്സ് ആകെ ഞങ്ങളുടെ ഇവിടെ അഞ്ചാറ് ബസ്സേ ഉള്ളു അതില് മൂന്നു ബസ്സ് നിർത്തലാക്കി മൂന്ന് ബസ്സാണ് പിന്നേ ഓടുന്നത് അതും ചില സമയത്ത് അവർക്ക് ആളുകള് കിട്ടിയില്ലാന്ന് വരികയാണെങ്കിൽ അവര് പിറ്റത്തെ പിറ്റത്തെ സമയത്ത് അവര് ഓടില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ ഓടുക അപ്പം യാത്രക്കാര് ബുദ്ധിമുട്ടുക തന്നെയാണ് ചെയ്യണത് ഇവിടെ എന്ത് എന്ത് ഇതിന് ചെയ്യുകയാണെങ്കിലും എന്ത് ഇതിന് പോവുകയാണെങ്കിലും വളരേ വലിയ ബുദ്ധിമുട്ടാണ് ഗതാഗത ഇല്ലായ്മ കൊണ്ട് നേരിടേണ്ടി വരുന്നത്